നവജാത ശിശുവിന് ക്രൈസ്തവരുടെ ഇടയില് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് മാമോദീസ നല്കലാണ് ചിലവർ ജനിച്ച ഉടനെതന്നെ തേനും സ്വര്ണ്ണവും നാവിൽ അരച്ചു കൊടുക്കുന്നൊരു രീതി നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ചെയ്യുന്നത് മാമോദീസ കൊടുക്കുന്നതിനോടൊപ്പം വിശുദ്ധ കുർബാന സ്വീകരണം ദിവ്യകാരുണ്യ സ്വീകരണവും തൈര് ലേപനവും നല്കാറുണ്ട് കൂടാതെ ഹൈന്ദവ ആചാരത്തിൽ നൂലുകെട്ട് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോള് ആണ്കുട്ടിയാണെങ്കിൽ ഇരുപത്തേഴാമത്തെ ദിവസം അരയിൽ നൂലു കെട്ടുകയും ചടങ്ങ് നടത്തുകയും ചെയ്യും പെണ്കുട്ടിയാണെങ്കിൽ ഇരുപത്തിയെട്ടാമത്തെ ദിവസം വീട്ടിൽ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി നൂലുകെട്ടി പേരിടുന്ന ഒരു ചടങ്ങ് ഉണ്ട് ഇത് കണ്ടു കേട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ മാമോദീസയ്ക്കാണ് ക്രൈസ്തവരുടെ ഇടയിലും പേരിടുന്നത് ഇപ്പോൾ സര്ക്കാർ തലത്തില് ജനിച്ച ഉടനെതന്നെ പേര് നല്കേണ്ടതുള്ളതുകൊണ്ട് നേരത്തെതന്നെ മാതാപിതാക്കൾ കുഞ്ഞിന് പേര് നോക്കി വയ്ക്കും അങ്ങനെ നല്ലെയൊരു നാമം നല്കി കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് സ്വീകരിക്കും